ഞങ്ങളുടെ അടുത്ത ആളുകൾക്ക് ഒരുപാട് പത്രങ്ങൾ വായിക്കാൻ കഴിയുന്ന ഒരു ലൈബ്രറിയുണ്ട് പൊൻപുലരി എന്നാണ് ലൈബ്രറിയുടെ പേര് ഇന്നത്തെ കാലത്ത് നമുക്ക് അറിയാം പുസ്തകങ്ങൾ വായിക്കുന്നവർ വളരെ കുറവാണ് നമ്മുടെ ചെറുതിലേക്കിപ്പം എൻ്റെ ഒക്കെ ചെറുപ്പത്തിലെ നോക്കുവാണെന്ന് ഉണ്ടെങ്കിൽ സ്കൂള് തൊട്ടെ പത്രം വായിക്കുക ഒത്തിരി നല്ല എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വായിക്കുക ടീച്ചർമാർ നമ്മളെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു അതുപോലെ തന്നെ മാതാപിതാക്കൾ ആണെങ്കിൽ നമ്മളോട് പുസ്തകങ്ങൾ വായിക്കാന്നൊക്കെ ഒത്തിരി പറയുവായിരുന്നു നമ്മുടെ അധ്യാപകർ മാതാപിതാക്കൾ എല്ലാവരും ഒത്തിരി ഇതിനേം നമ്മളേം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ച് ഈ പുസ്തകങ്ങൾ വായിക്കാന്ന് പറയുന്നത് അവർക്ക് അന്യം നിന്ന് പോന്നൊരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കയാണ് കാരണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയക്കഡിക്റ്റായ കുട്ടികളതായത് ഫോണ് മാത്രം ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ലൈബ്രറി എന്താണെന്നോ പുസ്തകങ്ങളുടെ വില എന്താണെന്നോ അങ്ങനെ ഒന്നും അറിയാത്ത ഒരു സാഹചര്യം ഉണ്ട് നമുക്ക് പണ്ടത്തെ കാലത്ത് ഇപ്പോൾ നമ്മളെ വായിക്കാൻ പഠിപ്പിക്കുന്നത് ഓരോ പുസ്തകങ്ങൾ കാണിച്ച് അതിലെ ചിത്രങ്ങൾ കാണിച്ച് അതിലെ വാക്കുകൾ നമ്മളെ വായിക്കാൻ പഠിപ്പിച്ച് അങ്ങനൊക്കെയാണ് നമ്മൾ പണ്ടത്തെ കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ അതായത് എൻ്റെ ചെറുപ്പത്തിൽ ഒക്കെ എൻ്റെ മാതാപിതാക്കൾ എന്നെ പുസ്തകം വായിക്കാൻ വേണ്ടിട്ടൊക്കെ പ്രോത്സാഹിപ്പിച്ചോണ്ടിരുന്നത് പക്ഷേ ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുമ്പം ഒരിക്കലും അവരൊരു വായനയുടെ ലോകത്തോട്ട് പോകാൻ താല്പര്യം ഇല്ലാത്തവർ ആണ് കുഞ്ഞുണ്ണി മാഷ് പറയില്ലേ വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ച് വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും എന്ന് പറയുന്നത് അപ്പം നമുക്ക് എപ്പോഴും വായന എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ ആവശ്യമായിട്ട് ഉള്ളൊരു കാര്യമാണ് സോഷ്യൽ മീഡിയ വേണ്ട എന്നല്ല പക്ഷേ പത്രങ്ങൾ വായിക്കുന്നതിലൂടെ നമുക്ക് പ്രാദേശിക വാർത്തകളെപ്പറ്റി അതുപോലെ തന്നെ അന്താരാഷ്ട്ര വാർത്തകളെപ്പറ്റി അങ്ങനെ കൃത്യവായിട്ട് നമുക്ക് എല്ലാം അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പം ഈ ലൈബ്രറി സൗകര്യം ഇപ്പം ഒരു പ്രദേശത്ത് ലഭ്യമാക്കാന്ന് പറയുന്ന വളരെ വലിയ ഒരു കാര്യം ആണ് അതായത് ഇപ്പം ചെറിയ കുട്ടികൾ തൊട്ട് പ്രായമായാർക്ക് വരെ പത്രങ്ങളും പുസ്തകങ്ങളു ഒക്കെ വായിക്കാൻ വേണ്ടീട്ട് ലൈബ്രറി സൗകര്യങ്ങൾ ഒരുക്കാം എന്ന് പറയുന്ന വളരെ വലിയ ഒരു കാര്യമാണ് അതായത് കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുക പത്രങ്ങൾ വായിക്കുക എന്ന് പറയുന്നത് കുട്ടികൾക്ക് അതുപോലെ തന്നെ പ്രായ ആയവർക്ക് ഒക്കെ ഒത്തിരി താല്പര്യം ഉള്ളൊരു കാര്യവും ആണ് അവരെ അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് എടുക്കാൻ വേണ്ടീട്ടല്ലെങ്കിലാ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടീട്ടീ പറയുന്ന ലൈബ്രറികൾ ഉപകാരപ്പെടും അവിടെ ഇപ്പം കുട്ടികൾക്ക് ആണെങ്കിലും ചിത്രകഥകൾ തൊട്ട് നമുക്ക് നോവലുകൾ കഥ കവിത ഉപന്യാസം ലേഖനങ്ങൾ നല്ല നല്ല എഴുത്തുകാരുടെ മലയാളം ഹിന്ദി നമ്മുടെ ഇംഗ്ലീഷങ്ങനെ പല ഭാഷകൾ ലഭ്യമാക്കുക ആണെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഭാഷേനെപ്പറ്റീം കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഇപ്പോൾ ഒരു പുസ്തകം വായിക്കു ഒരു പുസ്തകം വായിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടാലാണ് നമുക്ക് കൂടുതലായിട്ടും വായിക്കുക എന്നൊരു ഇത് വരുന്നത് അതുപോലെ തന്നെ പത്രങ്ങൾ വായിക്കുന്നതിലൂടെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മുടെ ചുറ്റുപാട് എന്താണ് നടക്കുന്നെന്ന് ഉള്ളത് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഒക്കെ മാതാപിതാക്കളെ സംബന്ധിച്ച് രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു ചായയുടെ പത്രം കിട്ടുകാന്ന് പറയുന്ന വളരെ വലിയ ഒരു കാര്യം ആയിരുന്നു അതായത് പത്രവായനിലൂടെയാണ് അവർ അവരുടെ ആ ദിവസം തുടങ്ങുക എന്ന് പറയുന്നത് പത്രം വായിക്കുക അപ്പം നമ്മുടെ ചുറ്റുപാടും ഇന്ന് രാവിലെ എന്തൊക്കെയാണ് സംഭവിച്ചേക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നതീ പത്രം വായിക്കുന്നതിലൂടെയാണ് അപ്പം വീടുകളിൽ പത്രം വരുത്തുന്നവർ ഇന്നത്തെ കാലത്ത് ചുരുങ്ങി കൊണ്ടിരിക്കയാണ് പക്ഷേ പത്രങ്ങൾ ഇപ്പം നമ്മൾ ലൈബ്രറിൽ ലഭ്യമാക്കുക ആണെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ലൈബ്രറിയിൽ പത്രങ്ങൾ മാതാപിതാക്കൾക്ക് വായിക്കാം കുട്ടികൾക്ക് വായിക്കാം അങ്ങനെ ഒരുപാട് താല്പര്യം ഉള്ള രീതിയിൽ നമുക്ക് വായിക്കാൻ പറ്റും പല രീതിയിൽ ഉള്ള ചിത്ര കഥകൾ കഥാ പുസ്തകങ്ങൾ ഉപന്യാസങ്ങൾ ലേഖനങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ലൈബ്രറി ലഭ്യമാക്കുക ആണെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപോലെ കുട്ടികളെയും പ്രായമായവരെ എല്ലാം ആകർഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലൈബ്രറീന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഒത്തിരി ഉപകാരപ്രദമാണ് ഇന്നത്തെ കാലത്ത് അന്യം നിന്നു പോകുന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റും അപ്പം പല ഭാഷയിലുള്ള പത്രങ്ങൾ നമ്മൾ ലൈബ്രറിയിൽ ലഭ്യമാക്കുക ആണെന്ന് ഉണ്ടെങ്കിൽ എല്ലാ രീതിയിൽ അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പം മലയാളികൾ മാത്രമല്ല താമസിക്കുന്നത് വേറെ സ്ഥലങ്ങളിൽ നിന്ന് ജോലി ചെയ്യാൻ വേണ്ടി വന്നവർ ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഒരു അതിനകത്ത് ഒരു അംഗത്വം കൊടുക്കുക ആണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും പതത്രം വായന എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു ദൈനം ജീവിതത്തിൽ വളരെ ദൈനംദിന ജീവിതത്തിൽ വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം ആണ് അപ്പം കൂടുതൽ പത്രങ്ങൾ വായിക്കുക പുസ്തകങ്ങൾ വായിക്കുക നമ്മുടെ അറിവിനെ നമുക്ക് വികസിപ്പിച്ച് എടുക്കാൻ പറ്റും ആ രീതിയിൽ ചെയ്യുവാണെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഉപകാരപ്രദമാണ് അപ്പം പത്രങ്ങൾ വായിക്കുക എന്ന നമുക്ക് നമ്മുടെ നമ്മുടെ ഒരു അറിവിനെ കൂടുതൽ കൂട്ടാൻ പറ്റുന്ന കാര്യമാണ് അപ്പം വായിക്കുക പത്രങ്ങൾ മാത്രം അല്ല മാസികകൾ ഇപ്പം മനോരമ പോലെയുള്ള മാസികകൾ നമ്മൾ കൂടുതലായിട്ടും വരുത്തുന്നവർ ഒക്കെ ആയിരിക്കും വീട്ടിൽ അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പല കാര്യങ്ങളാണ് നമുക്ക് പത്രങ്ങളൂടെ അറിയാൻ പറ്റുന്നത് ഇന്നത്തെ സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്ന ഓരോ ദിവസം ഞെട്ടിക്കുന്ന വാർത്തകളൊക്കെ ആയിട്ടാണല്ലോ നമ്മൾ ഉറക്കാം ഉണരുന്നത് തന്നെ അതുകൊണ്ട് പലതരത്തിലുള്ള ന്യൂസുകൾ നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ പറയുന്ന പത്രമാധ്യമങ്ങളിലൂടെയാണ് പത്രങ്ങൾ വായിക്കുന്നതിലൂടെ അതായതൊരു ലൈബ്രറി ഉണ്ട് അവിടെ നമുക്ക് വായനാ സൗകര്യം ഉണ്ടെങ്കിൽ ഇപ്പം രാവിലേം വൈകിട്ടും ഒക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ ബന്ധങ്ങളും അതുവഴി വളർത്തി എടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഒരു ലൈബ്രറി കാണുമ്പം എന്നും കാണുന്നവർ തമ്മിൽ ഒരു പരിചയം പുതുക്കാനും അങ്ങനെയൊക്കെ പറ്റും നമ്മുടെ വിവരം മാത്രം അല്ല നമ്മുടെയൊരു സമൂഹ ജീവിതം എന്ന് പറയുന്ന കൂടുതലും മെച്ചപ്പെടുത്താൻ പറ്റുന്ന ഈ പറയുന്ന ലൈബ്രറികളുടെ സഹായത്തോടെയാണ്